മരുത്വാമലയെ സന്ദർശിച്ച സമയത്ത് പെട്ടെന്ന് കണ്ട ഒരു കാര്യമാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു കുരങ്ങ് വളരെ വിചിത്രമായ ഒരു കുരങ്ങിനെയാണ് ഞങ്ങളെല്ലാവരും തീർത്ഥാടന സമയത്ത് കണ്ടത് ഈ ഇങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാം തന്നെ ഞാൻ ഫോണിൽ പെട്ടെന്ന് തന്നെ എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരിക ആണെങ്കിൽ ഫോണിൽ എടുക്കാറുണ്ട് വാട്സാപ്പിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോലെയുള്ള സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിൽ നമ്മൾ അത് അപ്ലോഡ് ചെയ്യാറുണ്ട് സ്റ്റാറ്റസായിട്ട് ഇടാറുണ്ട് സ്റ്റോറി ആക്കാറുണ്ട് അതുപോലെ എല്ലാം ചെയ്യാറുണ്ട്